കേരളീയ ചരിത്രത്തെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പാമ്പുകൾ കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഉള്ളത് പാമ്പുകള് പല പല തരത്തിലുള്ള പാമ്പുകളാണുള്ളത് ആ പാമ്പുകളേയും കൊണ്ട് നമ്മളെവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ കാടുള്ള സ്ഥലത്തുകൂടിയൊക്കെ നടന്നു പോകുന്ന ഇടവഴിയൊക്കെ ഉള്ള സ്ഥലത്ത് കൂടി ഒക്കെ പോവുകയാണെങ്കിലൊക്കെ പാമ്പിനെ നമ്മൾ അറിയാതെ ചവിട്ടുകയോ പാമ്പ് നമ്മളെ അക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലത്തെ ഒന്നാണ് പിന്നേ അറവ് അറവ് വ്യാപാരികള് അറബ് വ്യാപാരികള് വന്നിട്ട് ഇവിടെയുള്ള സ്വർണ്ണ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ കൊടുക്കാണ്ട് ഇവടെ കുറഞ്ഞ വിലയില് വിക്കുകയും വിൽക്കാണ്ട് ഇവിടെയുള്ള സ്വർണ്ണക്കടക്കാരെയും മറ്റുള്ള ആൾക്കാരെ അടുത്ത് നിന്നൊക്കെ സ്വർണങ്ങള് പിടിച്ച് പറിച്ച് കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്കൊരു സാമൂഹികമായൊരു പ്രശ്നമാണ് പിന്നെ തെയ്യം ഉത്സവം തെയ്യം എന്ന് പറഞ്ഞാല് എല്ലാവരും പേടിക്കുന്നൊരു രൂപമാണ് ആ രൂപത്തിനെ കുറേ ആൾക്കാര് പേടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പിന്നെ സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് പാമ്പിനെ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ബുദ്ധിമുട്ടുന്നത്